ഹലോ ഡോക്ടർ ഡോക്ടർ എനിക്ക് ചുമയും പനിയുമൊക്കെ ആയിട്ട് ഇപ്പോൾ വീട്ടിൽ ഇരിക്കുകയാണ് അപ്പോൾ ഈ വീട്ടിൽ ഇരുന്ന് ചെയ്യാൻ പറ്റിയ ഇതിനുവേണ്ടി പ്രതിരോധിക്കാൻ പറ്റണ എന്തെങ്കിലും മാർഗ്ഗങ്ങളൊക്കെ ഒന്ന് പറയാമോ ചുമ ഉണ്ട് പിന്നെ ജലദോഷം നല്ല തൊണ്ട വേദന ഒക്കെ ഉണ്ട് ഇത് രണ്ടു ദിവസമായി ഇല്ല നോക്കിയിട്ടുണ്ടായിരുന്നില്ല ഡോക്ടറോട് ഒന്ന് ചോദിച്ചിട്ട് എന്താണെന്ന് വച്ചാൽ ചെയ്യാമെന്നു വച്ചിട്ടാണുണ്ടായിരുന്നത്

ഓ ശരി ഡോക്ടർ ഓ ശരി ഡോക്ടർ പിന്നെ ഈ തൊണ്ട വേദനയ്ക്ക് കഫക്കെട്ട് ചെറുതായിട്ടുണ്ട് ആ ശരി ഡോക്ടർ അപ്പോൾ ഞാൻ ഡോക്ടർ പറഞ്ഞതുപോലെ ഒക്കെ ഒന്ന് ചെയ്തു നോക്കി നോക്കാം എന്നിട്ട് ഭേദമായില്ലെങ്കിൽ അല്ല ഭേദമായിട്ടില്ലെങ്കിൽ നേരിട്ട് വരാം എനിക്ക് മാത്രമേ ഉള്ളു വേറെ ആർക്കും കുഴപ്പമൊന്നുമില്ല ഓ ശരി ഡോക്ടർ ശരി അപ്പോൾ ഞാൻ ഇനി എന്തെങ്കിലും ആ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം ആ ശരി ഡോക്ടറേ അപ്പോൾ ഞാൻ ഡോക്ടർ പറഞ്ഞമാതിരി ഒന്ന് ചെയ്തു നോക്കട്ടെ അതേ ഞാൻ എന്നിട്ട് റിസൽട്ട് ഡോക്ടർക്ക് ഒന്ന് വിളിച്ചു പറയലായി

ഓ ശരി ഡോക്ടർ ഓക്കെ ഓക്കെ